കോട്ടയം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇപ്പം എൽ ഡി എഫാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെന്ന് പറയുമ്പം കേരളാ കോൺഗ്രസ്സ് എമ്മ് സീ പ്പീ എമ്മ് സീ പ്പീ ഐയ്യ് എന്നിവയാണ് പ്രധാന കക്ഷികൾ അതുപോലെത്തന്നെ ഭൂരിഭാഗം പഞ്ചായത്തുകൾ ഭരിക്കുന്നത് യൂ ഡീ എഫാണ് ഐക്യജനാധിപത്യമുന്നണി ബ്ലോക്ക് പഞ്ചായത്തുകൾ കൂടുതലും ഭരിക്കുന്നത് എൽ ഡി എഫാണ് പിന്നീടുള്ള ഏതാനും ചില എം എൽ എമാരുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ വൈക്കം ഏറ്റുമാനൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എമാരാണ് നയിക്കുന്നത് പുതുപ്പള്ളി കോട്ടയം പാല തുടങ്ങിയ മണ്ഡലങ്ങൾ യു ഡി എഫാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടുന്ന മണ്ഡലം പുതുപ്പള്ളി മണ്ഡലമാണ് അവിടുത്തെ എം എൽ എ ഇപ്പോൾ ചാണ്ടി ഉമ്മനാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ കുഴപ്പമില്ലാത്ത രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ ഓടിനടന്ന് ചെയ്യുന്നുണ്ട് പിന്നീടുള്ള പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം ടൗണിൽ കൊണ്ടുവന്നൊരു വികസനത്തിൻ്റെ ഒരു കാര്യമാണ് ആകാശപാത പക്ഷേ അത് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹം പറയുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷം അതിനുവേണ്ടി ഫണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ആരോപിക്കുന്ന ഒരു പ്രധാന കാര്യം പിന്നെയുള്ള ഒരു ഞങ്ങളുടെ കൂടെ ചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലമാണ് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ മൈക്കിൾ എം എൽ എയാണ് അദ്ദേഹം കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ പോകുന്നു അത്യാവശ്യം അറ്റൻറ് ചെയ്തു പോകുന്നുണ്ട് എടുത്തു പറയത്തക്കതായിട്ട് ഒരു വികസനത്തിൻ്റെ കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാൻ പുള്ളിക്ക് പറ്റിയിട്ടില്ല അതിനുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളതും എങ്കിലും ആവശ്യമായ ഇടപെടലുകളൊക്കെ എല്ലായിടത്തും പുള്ളി നടത്തുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇപ്പോൾ വർഷങ്ങളായിട്ട് യു ഡി എഫ് അതായത് ഐക്യ ജനാതിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരുന്ന മണ്ണിൽ പഞ്ചായത്താണ് ഇപ്പോൾ അത് ഭരിക്കുന്നത് എൽ ഡി എഫാണ് ഏകദേശം അംഗബലമൊക്കെ തുല്യമാണ് ഒന്നോ രണ്ടോ സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എങ്കിലും കുഴപ്പമില്ലാതെ പോകുന്നു കഴിഞ്ഞ കഴിഞ്ഞവർഷം വരെ സി പി എമ്മിൻ്റെ പ്രതിനിധിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇപ്പോൾ സി പി ഐയുടെ പ്രതിനിധിയാണ് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്നത് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആർക്കും ഞാനെന്നല്ല ആർക്കും അത്ര തൃപ്തിയൊന്നുമില്ല കാരണം പഞ്ചായത്തിലാണല്ലോ പഞ്ചായത്തിൽ നിന്നാണല്ലോ കൂടുതലും ഈ അടിസ്ഥാന വിവാദങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ മുഴുവൻ നേരിടുന്നത് ഒരു എം എൽ എ എം പിയോ പോലെയല്ലല്ലോ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരാണ് അപ്പം എന്തു പറഞ്ഞ് എത്രയൊക്കെ അവർ ചെയ്തെന്ന് പറഞ്ഞാലും ആൾക്കാർ സാറ്റിസ്ഫൈഡല്ല പിന്നെ ഞങ്ങളുടെ ഇപ്പോഴത്തെ എം പി ഫ്രാൻസിസ് ജോർജാണ് കോട്ടയം കോട്ടയം പാർലമെൻ്റിലുള്ള കോട്ടയം ജില്ലയിലെ തന്നെ നോക്കിയാൽ കോട്ടയം ജില്ലയിൽപ്പെടുന്ന വേറെയൊരു മണ്ഡലമാണ് അതിൻ്റെ ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലം മാവേലിക്കര പാർലമെൻ്റ് മണ്ഡലത്തിൽ പെടുന്നതാണ് അങ്ങനെ അതുപോലെതന്നെ പൂഞ്ഞാറൊക്കെ പത്തനംതിട്ട മണ്ഡലത്തിൽ പെടുന്നതാണ് എങ്കിലും കോട്ടയത്തിൻ്റെ എം പി എന്നുപറയുന്നത് ഫ്രാൻസിസ് ജോർജാണ് അദ്ദേഹം തരക്കേടില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നു പറയാം പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഒന്നും വിലയിരുത്താറായിട്ടില്ല അങ്ങനെ പോകുന്നു